ആ ഉണ്ട് ഞാൻ പാചകത്തിൽ എല്ലാവരുടേയും ഇഷ്ടങ്ങളും കുറവുകളും എല്ലാം മനസ്സിലാക്കിയിട്ട് ആയിരിക്കും ഞാൻ ചെയ്യുക ഇപ്പോൾ കുട്ടികൾക്ക് ആണെങ്കിൽ എരിവുകൾ കുറച്ചു കുറച്ചു മതി അപ്പോൾ ഞാൻ എരിവു കുറച്ച് ആ കുട്ടികൾക്ക് മാറ്റി വച്ചിട്ട് എരിവ് കുറച്ച് ഉണ്ടാക്കും പിന്നെ വലിയവർക്കാണെങ്കിൽ എരിവ് വേണ്ടവർക്ക് എരിവുകൾ ആക്കും ഇപ്പം പായസം വെക്കുകയാണെങ്കിൽ ഷുഗറുള്ള ആൾക്കാർക്കെല്ലാം മധുരം ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇച്ചിരി മധുരം ഇട്ടിട്ട് മാറ്റി വെക്കും മധുരമുള്ള വേണ്ട ആൾക്കാർക്ക് മധുരം വേണ്ടതാക്കും അങ്ങനെ പല പല ആൾക്കാർക്കും പല ഇഷ്ടങ്ങളായിരിക്കും ഓരോ വീട്ടിൽ രോഗം രോഗാവസ്ഥയിലുള്ള ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ അവരുടെ ഇഷ്ടത്തിനായിരിക്കും ഫുഡ് ഉണ്ടാക്കുക